എൻ്റെ മാതൃഭാഷയിലല്ലാത്ത ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല അതുപോലെ ഞാൻ വായിച്ച ഈ അടുത്ത നാളിൽ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സേവന നിരതയായ സഭ എന്ന പുസ്തകം അത് എനിക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരനുഭവമായിരുന്നു അത് വായിച്ചതിലൂടെ സഭ എന്തുകൊണ്ടു സേവന നിരതയാകുന്നു എന്ന ചോദ്യത്തോടു കൂടിയാണ് അതു തുടങ്ങുന്നതു പോലും സേവന നിരത അല്ലാതായിരിക്കുവാൻ സഭയ്ക്ക് സാധിക്കുകയില്ല എന്നാണ് അതിനുത്തരം കാരണം ഈശോ പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണെന്നും സ്വന്തം ജീവൻ മറ്റുള്ളവർക്കു വേണ്ടി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നും അരുളി ചെയ്ത ഈശോമിശിഹായുടെ തുടർച്ചയാണ് സഭ ക്രിസ്തുമതം വിമോചനത്തിൻ്റെ മതമാണ് മനുഷ്യരക്ഷയുടെ മതമാണ് ഈ വിമോചനത്തിൻ്റെ പരിപ്രേഷമാണ് സേവന നിരതയായ സഭ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും പാരസ്പര്യമാണ് സേവന നിരതയായ സഭ ഊതി കത്തിക്കുന്നത് ജീവൻ്റെ ശുശ്രൂഷയിലൂടെയും വിമോചനത്തിൻ്റെ നൂതന വാതിലുകൾ വെട്ടിത്തെളിച്ചും സഭ നിർവഹിച്ച ഈ ദൗത്യം ഇന്ന് പലർക്കും അജ്ഞാതമാണ് അറിയാവുന്നവർ പോലും ബോധപൂർവ്വം അതിനെ അവഗണിക്കുകയും ചെയ്യുന്നു അക്ഷരവെളിച്ചം പകർന്നും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും വഴിയിൽ ജീവനർപ്പിച്ചും ക്രൈസ്തവസഭ പടുത്തുയർത്തിയ സ്നേഹ സംസ്കാരത്തിൻ്റെ ചരിത്രം മര മറക്കുന്നവർക്ക് ഒരു മറുപടി കൂടിയാണ് ഈ സേവനനിരതയായിട്ടുള്ള ഈ സഭ എന്ന ഈ പുസ്തകം പോലും പുതിയ തലമുറയ്ക്ക് സേവനനിരതയായ സഭയുടെ ചരിത്രാവബോധത്തെ കുറിച്ച് എങ്ങനെയാണ് ഇതെങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു ഊന്നൽ നൽകുന്നതുമാണ് ഈ ഈ പുസ്തകം വിശ്വാസം പഠനം സേവനം എന്നീ മുദ്രാവാക്യങ്ങൾ ജീവിത പ്രമാണമാക്കിയാണ് അതിൻ്റെ അടിത്തറയായിട്ട് നില കൊള്ളുന്നത് ഈ മുദ്രാവാക്യം തന്നെയാണ് അതുപോലെതന്നെ ക്രൈസ്തവ മാതാപിതാക്കൾ നിന്ന് ഞാൻ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ആരും ക്രിസ്ത്യാനി ആകുന്നുമില്ല ഈശോ സ്ഥാപിച്ച കൂദാശകൾ വഴിയായും ക്രിസ്തീയ വിശ്വാസ പരിപോഷണം വഴിയായും മാത്രമേ ഒരു വ്യക്തി ക്രിസ്ത്യാനിയായിട്ട് മാറുകയുള്ളു ഈ അടുത്ത നാളിൽ ഞാൻ വായിച്ച ഈ പുസ്തകം ഇത് തന്നെയാണ് സേവന നിരതയായ സഭ അവൻ നന്മ ചെയ്തു കടന്നുപോയി അതുപോലെ ഞാനും നന്മ ചെയ്ത് ഈ ജീവിതത്തെ ഏറ്റവും സബ്മർത്ഥതയുടെ കർമ്മ സാക്ഷ്യം നൽകി ജീവിക്കേണ്ടവളാണ് എന്നുള്ള ഒരു ബോധ്യവും അതിനുള്ള ഒരു പ്രചോദനവുമാണ് ഈ പുസ്തകത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഏതു വിശ്വാസ പ്രതിസന്ധിയിലും വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയായ ഈശോയോട് ചേർന്നു നിൽക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ള വലിയൊരു ഘടകവുമാണ് ഈ സേവന നിരതയായ സഭയിൽ എന്ന പുസ്തകത്തിലൂടെ എനിക്ക് ലഭിച്ചത് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ എല്ലാവരും തന്നെ മറ്റുള്ളവരും അറിഞ്ഞിരി അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്